പഴയ ഗാനവും പുതിയ ഗാനവും തമ്മിലുള്ള വ്യത്യസമെന്താണെന്ന് പറയാമെന്ന് വച്ചാൽ ഇപ്പോൾ പഴയ ഗാനത്തിൻ്റെ എടുത്ത് നോക്കുക ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ ദാ എന്താണ് പറയുക ട്യൂൺസും മ്യൂസിക്കും പിന്നെ അത് പോലെ തന്നെ ലിറിക്സൊക്കെ വളരെ എന്താണ് പറയുക നമുക്ക് വേഗം മനസ്സിലാക്കാൻ പറ്റുന്നതും പിന്നെ അത് പോലെ തന്നെ വളരെ വളരെ രീതിയിൽ നല്ല രീതിയി ലും പിന്നെ അത് പോലെ മാത്രമല്ല ഇപ്പം പുതിയ മ്യൂസിക്ക് വച്ച് നോക്കുക ആണെന്നുണ്ടെങ്കിൽ തന്നെ പഴയ ഗാനങ്ങളിൽ ആറ് മിനിറ്റ് ആറ് മിനിറ്റിൽ കുറയില്ല ഒരു പാട്ടും ആറ് മിനിറ്റിൽ കുറയുന്നതല്ല പിന്നെ അത് മാത്രമല്ല അത്രയ്ക്കും നല്ല രീതിയിൽ കമ്പോസ്റ്റ് ചെയ്തിട്ടാണ് അത്രക്കും സൂക്ഷ്മതയോടെയും അത്രക്കും എന്താണ് പറയുക അത്രക്കും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടാണ് പണ്ടത്തെ ഗാനങ്ങളൊക്കെ ഈ മ്യൂസിക് പ്രൊഡ്യുസേസ് ഗാന രചയിതാക്കൾ ആണെന്നുണ്ടെങ്കിലും അതെ എന്താണ് ഗാനം ട്യൂൺസൊക്കെ കംപോസ് ചെയ്തത ആളാണെങ്കിലും അതെ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷെ പഴയ പുതിയ ഗാനങ്ങളക്കെ ഉണ്ടാക്കി വന്ന ആൾക്കാരുടെ വച്ച് നോക്കുക ആണെന്നുണ്ടെങ്കിൽ അവർ വളരെ അലസത അലസത കൊണ്ട് എഴുതി ഉണ്ടാക്കിയ ഒരു മടി പിടിച്ചിട്ട് എഴുതി ഉണ്ടാക്കിയ അങ്ങനെ ഒരു മ്യൂസിക്ക് ആണിപ്പം വരുന്ന പല പാട്ടുകളിലും കണ്ട് വരുന്നത് അത് മാത്രമല്ല എല്ലാ പാട്ടുകളുമാണെങ്കിൽ നോക്കുകയാണെന്ന് ഉണ്ടെങ്കിൽ തന്നെ രണ്ട് മിനിറ്റിൽ കുറവായിരിക്കും രണ്ട് മിനിറ്റോ അതിൽ കുറവോ ആയിരിക്കും എല്ലാ പാട്ടുകളും ഇപ്പോൾ ഉള്ള ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും അതെ അപ്പോൾ എനിക്ക് പിന്നെയും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് പഴയ പാട്ടുകളാണ്